ഹലോ ഊബറിൻ്റെ കസ്റ്റമർ കെയർ ആണോ ഞാൻ കഴിഞ്ഞദിവസം ഊബറിൻ്റെ ഒരു ട്രിപ്പില്

അപ്പോള് കഴിഞ്ഞ വൈകുന്നേരം ആറു മണിക്കായിരുന്നു ക്യാബ് ഞാൻ കൊല്ലത്തുനിന്നു പിടിച്ചത് അപ്പോള് അത് ഒന്ന് ട്ര ട്രെയ്സ് ചെയ്ത് ആ ക്യാബിലെ ഡ്രൈവർ ആരാണെന്ന് ഒന്ന് അന്വേഷിക്കാൻ പറ്റുമോ കിട്ടണ കിട്ടണമെന്നില്ല വേറെ ഏതേലും യാത്രക്കാര് വന്നെങ്കിൽ എടുത്തോണ്ട് പോയോന്ന് അറിയില്ല എന്തായാലും ഒന്ന് ആ ക്യാബ് ഡ്രൈവറെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു ഒന്ന് ട്രെയ്സ് ചെയ്തൊന്നെക്ക് എനിക്കാ ക്യാബ് ഡ്രൈവറുടെ നമ്പരൊന്ന് എടുത്ത് തരാൻ പറ്റുമോ അല്ലെങ്കില് നിങ്ങളൊന്ന് വിളിച്ച് അന്വേഷിച്ചാലും മതി അപ്പോള് എനിക്ക് ഇപ്പോള് ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നമ്പരാണ് ഈ നമ്പറിലോട്ട് മെസ്സേജ് ഇട്ട് തന്നാൽ മതി ഓക്കേ താങ്ക് യു